ഇന്ത്യൻ തൊഴിൽ വിപണി എന്നുള്ളത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കനുസൃതമായിട്ട് അവിടുത്തെ വേതനവും എല്ലാം വിഭിന്നങ്ങളാണ് ഇന്ത്യൻ തൊഴിൽ വിപണിയിൽ ഫിക്സഡായിട്ടുള്ള ഒരു വേതന നിരക്ക് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഇപ്പോള് കേരളം എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തില് ഏറ്റവും കൂടുതൽ തൊഴിൽവേതനം നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ കുട്ടികൾ ഇവിടെ നൽകുന്ന വേതനം കൂടുതലാണെങ്കിൽപ്പോലും ആ വേതനത്തിന് ജോലി ചെയ്യാൻ തയ്യാറാകാത്തതിനാൽ അവർ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ് കാരണം അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടുതലായതുകൊണ്ട് അതിന് ആനുപാതികമായ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്കിവിടെ വളരെ വിരളമാണ് ആയതിനാൽ അവർ വിദേശ രാജ്യങ്ങളിലേക്കു പോവുകയും കേരളത്തിലെ തൊഴിലവസരങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കൂലി വളരെ കുറവായതിനാൽ അവിടെ നിന്നും ആളുകൾ കേരളത്തിലേക്കു വരികയും ഇവിടെ നിലവിലുള്ള കൂലിയിലും കുറഞ്ഞ നിരക്കിൽ അവര് പണിയെടുക്കുവാൻ തയ്യാറാകുകയും ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് ഇവിടെയുള്ള തൊഴിൽദാതാക്കൾ തൊഴിൽ നൽകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ തൊഴില് എടുക്കുന്നവർക്ക് വളരെ ചെറിയ വേതനമാണ് ആ സംസ്ഥാനങ്ങളിൽ നൽകുന്നത് കേരളത്തിലെ ജീവിത സാഹചര്യം എന്നതു വളരെ നിലവാരം കൂടിയ സാഹചര്യമാണ് അതിന് പ്രാപ്തമായത് ഇവിടത്തെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തന്നെയാണെന്ന് എടുത്തുപറയേണ്ടതുണ്ട് ഇവിടെ അഭ്യസ്തരല്ലാത്ത ആളുകൾ വളരെ കുറവാണ് അതിനാല് മറ്റു സംസ്ഥാനങ്ങളിൽനിന്ന് അഭ്യസ്ത വിദ്യരല്ല അഭ്യസ്തവിദ്യരല്ലാത്ത ആളുകൾ ഇങ്ങോട്ട് പാലായനം ചെയ്യുകയും അവർ ഇവിടെ നിലവിൽ ഉള്ള കൂലിയിൽനിന്നും കുറഞ്ഞ വേതനത്തിനു പണിയെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു അതു കൂടുതലും എടുത്തുപറയേണ്ടതു കാർഷിക മേഖലകളിലാണ് സർക്കാർ ജോലികളിലും മറ്റും ആളുകൾക്കു ജോലി കിട്ടാനുള്ള സാധ്യത കുറവുമാണ് കാരണം ഇവിടുത്തെ വളർന്നുവരുന്ന തലമുറ നല്ല വിദ്യാഭ്യാസമുള്ളതിനാൽ സർക്കാർ ജോലികളിലേക്കു മത്സര ബുദ്ധിയോടെ അവർക്കു പഠിക്കേണ്ടതായിട്ടും ആ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾ എല്ലാവർക്കും ജോലി ലഭിക്കാൻ സാഹചര്യമില്ലാത്തതുമാണ് പ്രധാന വെല്ലുവിളി ആയി നേരിടുന്നത് അതുകൊണ്ടുതന്നെയാണ് ഇവിടുത്തെ അഭ്യസ്ത വിദ്യർ മറ്റു രാജ്യങ്ങളിലേക്കു കുടിയേറിപ്പോവുകയും അവിടെ ജീവിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങൾ പോലെ ഉള്ളിടത്തു ജോലി ചെയ്തു സമ്പാദിച്ച് ആ പണം കൂടുതലും നമ്മുടെ തന്നെ രാജ്യത്തേക്ക് വരികയാണു ചെയ്യുന്നത് കാരണം അവിടെ സെറ്റിലാകാനുള്ള സാഹചര്യം കുറവായതിനാലാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കു പോകുന്ന ആളുകൾ പി ആർ എടുത്ത് കൂടുതൽ ആളുകളും അവിടെ തന്നെ സെറ്റിലാകാനുള്ള സെറ്റിലാവുകയാണ് ചെയ്യുന്നത് അതാണ് ഇന്ത്യൻ തൊഴിൽ വിപിണി നേരിടുന്ന പ്രധാന വിഷയം വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരുടെ വേതനം കൂടുതലും ആ രാജ്യത്തു തന്നെ ചെലവാക്കപ്പെടുകയും ആ രാജ്യത്തു തന്നെ അവർ വീട് വാങ്ങി അവിടെ ജീവിതം സെറ്റിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു